റേഡിയോ ടെലിവിഷൻ അച്ചടി തുടങ്ങിയ മാധ്യമങ്ങളിൽ മലയാളഭാഷ എങ്ങനെയാണ് ഉപയോഗിക്കപ്പെടുന്നതെന്നു ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കെന്നുവെച്ചാൽ നമുക്ക് എല്ലാറ്റിനും നമുക്ക് എല്ലാ കാര്യത്തിനും നമുക്ക് മലയാളഭാഷ വേണം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ റേഡിയോ ആണെങ്കിൽ ഇപ്പോൾ റേഡിയോയിലിപ്പോൾ നമ്മൾ ഇപ്പം കേരളത്തിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് കേരളത്തിലിപ്പോൾ മലയാളികളാണല്ലോ ഉള്ളത് അപ്പം റേഡിയോ അങ്ങനെ കുറേ അതായത് പണ്ടത്തെ ആൾക്കാരൊക്കെ ഉണ്ടാകും ഇപ്പോഴും റേഡിയോയിൽ കേൾക്കുന്നു റേഡിയോ ഇഷ്ടപ്പെടുന്നവർ ആൾക്കാർ ഒരുപാടുണ്ടാകും അപ്പം അതിലിപ്പോൾ വാർത്ത കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് മലയാളത്തിൽ അറിയണം അപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ ഇംഗ്ലീഷ് കാര്യ വേറെ ഭാഷകളൊക്കെ അറിയണമെന്നൊന്നുമില്ലല്ലോ നമുക്ക് കൂടുതലും മലയാളത്തിലാണല്ലോ നമ്മൾ പണ്ടുതൊട്ടേ ആശയവിനിമയവും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട്തന്നെ നമുക്ക് റേഡിയോയിൽ റേഡിയോയിലാണെങ്കിലും ടിലി ടെലിവിഷനിലാണെങ്കിലും പിന്നെ അങ്ങനെ അച്ചടി മാധ്യമങ്ങളിൽ അങ്ങനെ എല്ലാ കാര്യത്തിലും നമുക്ക് പിന്നെ മലയാളത്തിൽത്തന്നെ എല്ലാം കേൾക്കാൻ പറ്റും മലയാളമെന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് നമുക്ക് പണ്ട് തൊട്ടേ നമ്മുടെ മനസ്സിൽ പതിഞ്ഞൊരു ഭാഷയാണ് മലയാളം അപ്പോൾ നമ്മൾ ജനിച്ചു തൊട്ടേ ഇപ്പോൾ നമുക്ക് ജനിച്ചു തൊട്ട് ഇതിപ്പോൾ നമുക്കൊന്നും മനസ്സിലായില്ലെങ്കിലും നമ്മൾ ജനിച്ചു തൊട്ടേ നമ്മൾ കേൾക്കുന്ന കേൾക്കുന്നത് അതായത് മലയാളത്തിൽ എല്ലാവരും പരസ്പരം സം സാ പിന്നെ സംസാരിക്കുന്നതും കാര്യങ്ങളൊക്കെയാണ് ഇപ്പം നമ്മു ട അച്ഛനമ്മമാരാണെങ്കിലും എല്ലാവരും ആശയവിനിമയം നടത്തുന്നത് അതിലൂടെയാണ് അതിലൂടെയാണ് നമ്മളും മലയാളം പഠിക്കുന്നത്